ഹലോ സാർ ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്

ഇത്രയും കാലം ഇവിടെ മലപ്പുറത്ത് ആയിരുന്നു ഇപ്പോൾ ഇപ്പം അടുത്ത് കോഴിക്കോടേയ്ക്ക് മാറിയിട്ടേ ഉള്ളു ഈ കമ്പനിയിലേക്ക്

ആ എനിക്ക് അവിടെ അടുത്തായിട്ട് ഒരു വീട് വേണ്ട വരും ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ആയിട്ട് ഫറൂക്ക് ഫറൂക്ക് ആ അതേ അതേ എനിക്ക് ഒരു റൂമുള്ളത് മതി

ആ അതുമതി അതുമതി ആ വേണം ഇത് വില്ല ആയിട്ട് ഉണ്ടാകുമോ വില്ല ഉണ്ടാകുമോ രണ്ട് മൂന്ന് എങ്ങനെ

ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞ് തരുമോ

എനിക്കൊരു ഇപ്പോൾ ഒരു മൂന്ന് മാസത്തിന് മതി ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യാം ആ അതേ വർക്ക് ചെയ്യാനും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാസം ലീവാണ് ഒരു അപ്പോൾ ആ വർക്ക് വർക്കിൻ്റെ ടൈമിലായിട്ട് മാത്രം മതി നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട

അപ്പം നിങ്ങൾ പേർസണൽ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നതല്ലേ കമ്പനിയിൽ ആണല്ലേ ആ ആ നിങ്ങളുടെ കമ്പനി തന്നെ ആണല്ലേ ഓക്കെ ആ ഓക്കെ നിങ്ങൾക്ക് എന്നാണ് ലീവ് ഉണ്ടാവുക നമുക്ക് രണ്ടാൾക്കും കൂടെ ഒന്നിച്ച് പോയാൽ

ഓക്കെ അ ഓക്കെ ഓക്കെ എന്നാൽ വിളിക്കാം